ഇരുപത്തഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുപ്പത് പത്ത് രണ്ടായിരത്തി ഒന്ന് ഒന്ന് മന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ടേ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്പത് ഇരപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്